ആ ഹലോ നിത്യേ ആ ആ എടീ ഞാൻ നിൻ്റെ ഷോപ്പില് നാളെ വരുന്നുണ്ടായിരുന്നു എനിക്ക് കുറച്ച് തുണി തയ്ക്കാൻ ഉണ്ടായിരുന്നു

നാളെ ഞാൻ രാവിലെത്തന്നെ ഇറങ്ങാമെന്ന് ഓര്ത്തുകൊണ്ടാണ് ഇരിക്കുന്നത് എനിക്ക് കുറച്ച് തുണി തയ്ക്കാന് ഉണ്ടായിരുന്നു തയ്ക്കാന് കുറച്ച് ചുരിദാര് ബ്ലൗസ് അങ്ങനെ കുറച്ച് ഉണ്ടായിരുന്നു അപ്പം നാളെ രാവില ഞാന് ഇറങ്ങാമെന്ന് ഓര്ത്തുകൊണ്ടാണ് ഇരിക്കുന്നത് നീ നാളെ ഷോപ്പില് കാണുമല്ലോ അല്ലേ അപ്പം നിൻ്റെ റേറ്റ് എത്രയാ തയ്ക്കുന്നതിന്റെ റേറ്റ് എത്രയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ വിളിച്ചതായിരുന്നു എനിക്ക് ചുരിദാര് എനിക്ക് ചുരിദാറിൻ്റെ ഒരു അഞ്ച് മോഡൽ ഉണ്ടായിരുന്നു പിന്നെ ബ്ലൗസ് അങ്ങനെ കുറച്ച് ഉണ്ടായിരുന്നു എനിക്ക് ആലിയ കട്ട് എ ലൈന് അംബ്രല്ല പിന്നെ സാധാരണ നമ്മുടെ സ്ലിറ്റ് ഉള്ള ചുരിദാര് അത്രയും എണ്ണമാണ് എനിക്ക് വേണ്ടത് ആ ഞാന് കൊണ്ടുവരാമെന്ന് ഓര്ത്തുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നീ ഈ ചുരിദാറില് വർക്ക് ചെയ്ത് കൊടുക്കാറില്ലേ എംബ്രോയിഡറി വർക്ക് അപ്പോള് അതിന് എങ്ങനെയാണ് റേറ്റ് വരുന്നത് അപ്പോള് ബ്ലൗസിൻ്റെ റേറ്റ് എത്രയാണ് ബ്ലൗസ് സാധാരണ ബ്ലൗസും പ്രിൻസസ് കട്ടിൻ്റെ ബ്ലൗസിൻ്റെ റേറ്റും അത് എങ്ങനെയാണ് വരുന്നത് ആ എനിക്ക് മോള്ക്കുവേണ്ടി ഒരു പാവാടയും ബ്ലൗസും തയ്ക്കാൻ ഉണ്ടായിരുന്നു അതിൻ്റെ റേറ്റും കൂടെ നീ പറയൂ

ആ എനിക്ക് ഇച്ചിരി കുറച്ച് ഷേപ്പ് ചെയ്യാനും എല്ലാം കൂടെ ഉണ്ടായിരുന്നു അപ്പോള് ഷേപ്പ് ചെയ്യാൻ ഒക്കെ എത്രയാ നൂറ് നൂറ് രൂപ റേറ്റ് ആണോ വരുന്നത് ഷേപ്പ് ചെയ്യുന്നതിനൊക്കെ ആ ആണല്ലേ അപ്പോൾ നിനക്ക് തിരക്ക് ഒന്നുമില്ലല്ലോ എനിക്ക് അത്യാവശ്യം ആയിരുന്നു തുണി നീ ഈ വർക്ക് എല്ലാം എംബ്രോയിഡറി വർക്കും ആര്യവർക്കും ഒക്കെ ചെയ്യുമ്പോള് വേറെ ആളെ വെച്ചാണോ തയ്യൽ ചെയ്യിക്കുന്നത് അതോ നീ സ്വന്തമായിട്ടാണോ ചെയ്യുന്നത്

ആ അതറിയാനാണ് ചോദിച്ചത് സാധാരണ വേറെ ഒരാള് ചെയ്യുമ്പോള് അവര് പറയുന്ന റേറ്റാണല്ലോ വരുന്നത് അപ്പോള് ശരി ഇനി നാളെ ഞാന് വന്നേക്കാമെടീ ആ ശരി